ഇന്നു മിക്ക സ്കൂളുകളിലും ഒരു നിർബന്ധ വിഷയമായി യോഗ മാറിയിരിക്കുന്നു അതു കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും അവരുടെ ശാരീരിക ക്ഷമതയ്ക്കും വളരെയധികം നല്ലതാണ് ഇപ്പോൾ കുട്ടികൾ ഇന്നനുഭവിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദം തന്നെയാണ് കുട്ടികൾക്ക് ഇന്ന് സമയമില്ലായ്ക എന്നതുതന്നെയാണ് ഏറ്റവും നേരിടുന്ന വെല്ലുവിളി സ്കൂളിൽ പോകുക തിരിച്ചുവരിക പിന്നീടു വീണ്ടും പ ഠിക്കുക ഇങ്ങനെയുള്ള ഈ സാഹര്യത്തിൽ അവർക്ക് ഒരു ഒഴിവു ടൈം ലഭിക്കുക എന്നതുള്ളത് ഒരു ദൗർലഭ്യമായ കാര്യമാണ് ഈ ഇത് ഈ വെല്ല് വിളികളെയെല്ലാം നമുക്ക് നേരിടാനായിട്ട് യോഗ നമ്മളെ സഹായിക്കും നമ്മുടെ മാനസിക ഉല്ലാസവും അതേപോലെ തന്നെ നമ്മുടെ ശരിരത്തിന് ഒരെക്സർസൈസ് എന്ന നിലയിലും യോഗ നിർബന്ധമാക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അതു കുട്ടികളുടെ പഠനത്തിന് ഒരു ഒരു ഭൗതികമായ ഒരു ഒരു വളർച്ചയെ അതു ബാധിക്കുന്നുണ്ട് അവർക്കു അത് കൂടുതൽ മാനസിക ഉല്ലാസത്തിനും ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒരു വസ്തു തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് പഠിക്കുവാനുള്ള കഴിവും യോഗ അവർക്കു നൽകുന്നു